ഹലോ ആ ടീച്ചർ ആണോ ആ ടീച്ചറേ ഞാൻ വിളിച്ചത് എന്തിനാണെന്നറിയാമോ നമ്മളെ എയ്റ്റി ഫെസ്റ്റ് ഡേ വരികയല്ലേ അപ്പോൾ അതിന് സ്കൂളിലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും സംഗതി നടത്തുമോ അങ്ങനെത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിനെ പറ്റി ടീച്ചറിൻ്റെ അഭിപ്രായം എങ്ങനെയാണ് അതിനെ പറ്റി ചോദിക്കാൻ വേണ്ടിയാണ് അതിന് ടീച്ചർ

ആ അധിക ദിവസങ്ങളില്ല അധിക ദിവസങ്ങളില്ലാത്ത കാരണവേ അതെ അതെ അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമുക്കും രണ്ട് മൂന്ന് ടീച്ചർമാരെയൊക്കെ കൂട്ടി ഇച്ചിരി പരിപാടി നമുക്കുംകൂടെ ചെയ്താൽ ഒരു വെറൈറ്റി ആയിരിക്കും ആ ഒരു ഇത് ഇതൊരു സന്തോഷം ആയിരിക്കും അപ്പം സാറിന് ഒരു അഞ്ചെട്ട് ദിവസങ്ങളില്ലേ ഇപ്പോൾ ഓ അതിൻറ്റേതായിട്ടുള്ള രീതീയിൽ നമുക്ക് പരീക്ഷ നടക്കത്തക്ക രീതീയിൽ അതിനെ പറ്റി ഒന്ന് ആലോചിക്കണം ആ മെല്ലെ ചെയ്യാൻ അല്ലേ ആ അപ്പോൾ മറ്റേ നമ്മൾ ഇതിനകത്ത് നോക്കിയാൽ നമുക്ക് കുറച്ചുകൂടെ നല്ലതായിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും ഫോണിനകത്തൊക്കെ നോക്കി ആക്കി കൊടുക്കാം ആ

ആ ഒരു ഒമ്പത് ദിവസാ പാരൻറ്റ്സ് പാരൻറ്റ്സിനോട് പറഞ്ഞ് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തണം അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ സമയം പോവുമ്പഴത്തേന് അവർക്ക് പ്രശ്നമാവും അതെ അതെ അതെ അത് നമുക്ക് എല്ലാ ശനിയാഴ്ചകളിലും അവധി ഇല്ലല്ലോ സെക്കൻഡ് സാറ്റർഡേ അല്ലേ ഉള്ളൂ നമുക്കവധി വരുന്നത് അപ്പോൾ ആ ആ ദിവസങ്ങളിൽ നോക്കാം അതെ അതെ അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് അതിനെ പറ്റി ആലോചിക്കാൻ വേണ്ടി നമുക്ക് ഒരു ഇത് കൂടണം അതിന് ശേഷം വേണം കുട്ടികളെ വിളിച്ച് കൂട്ടാനായിട്ട്

അതെ അതെ അതെ ആ അങ്ങനെ ആലോചിക്കാൻ വേണ്ടി ടീച്ചറിന് എപ്പോഴാണ് സമയം കിട്ടുന്നു അതെ അതെ ആ എന്നാൽ എന്നാൽ ടീച്ചറിൻ്റെ സമയം സമയം കണ്ടെത്തി എന്നാൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ ഓക്കെ ശരി ഓക്കെ